കൽപ്പറ്റ വൈത്തിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു കരിന്തണ്ടൻ എന്ന ആളെ പിന്നെ റോഡ് കാണിക്കാൻ വേണ്ടി വന്നയാളെ സായിപ്പ്മാരെല്ലാം കൂടി കൊന്ന് പിന്നെ അയാള് വഴിയെല്ലാം കാണിച്ച് കുറച്ച് ദൂരം ചെന്ന് വഴിയെല്ലാം കാണിച്ച് കാട്ടി കൊടുത്തപ്പോഴ് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അയാളെ പിന്നെ സായിപ്പ്മാര് കൊന്ന് കളഞ്ഞത് അത് കഴിഞ്ഞു അയാള് പിന്നെ അയാള് പിന്നെ ജീവിച്ചിരുന്ന അത്രെയും ബുദ്ധിയുള്ളാള് ജീവിച്ചിരുന്നാൽ ഇവർക്കൊന്നും ഒരിത് ഉണ്ടാവില്ലാന്നു പറഞ്ഞിട്ട് അയാളെ കൊന്ന് കളഞ്ഞു പിന്നെ അത് കൊണ്ട് ആ വഴിക്ക് ഇപ്പം ജനങ്ങളൊക്കെ പോകുവാണെങ്കില് വണ്ടിയെല്ലാം ആക്സിഡന്റായി മറിഞ്ഞു വീണ് പല ആൾക്കാർക്കും പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് അത്കൊണ്ട് അയാളെ പിന്നെ അയാളുടെ പ്രേതം അവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ആക്സിഡന്റാകുന്ന കൊണ്ട് പ്രേതമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളെ പിന്നെ ചങ്ങലയില് ബന്ധിച്ച് ഇപ്പം അങ്ങനെയാണിപ്പം അതിലെ വഴിയെ എല്ലാരും പോകുന്നത് അതാണ് ഒരു അതിന്റെ ഐതീഹ്യം